ഉയരങ്ങൾ പോകുന്തോറും എനിക്ക് ശ്വാസം മുട്ടലിൻ്റെ ചെറിച്ച് ചെറിയ ഇഷ്യൂസ്സൊക്കെ വരാറുണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് കൂടുതലായിട്ട് എൻ്റെ ഇൻഹെയ്ലർ ഞാൻ എൻ്റെ കയ്യിൽ അതായത് എൻറ്റൊരു മരുന്നുണ്ട് എൻ്റെ കയ്യിൽ ഞാ വ വെയ്ക്കാറുണ്ട് സോ ശോസം മുട്ടൽ വരാറുന്നു വരുന്ന സമയങ്ങളിൽ ഞാനിതുപയോഗിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ മെയിനായിട്ട് ചെയ്യാറ് പിന്നേ ഇടക്കിടക്കിങ്ങനെ ഉള്ള മലകളിലൊക്കെ പോകാനെനിക്കിഷ്ടമാണ് അപ്പതു കൊണ്ടു തന്നെ പോകുന്ന സ്ഥലങ്ങളിലുള്ളതൊക്കെ ചിത്രങ്ങളൊക്കെ ഞാൻ ഫോണിലെടുക്കുകയും അതു സോഷ്യൽ മീഡിയാസ് അതായത് സമൂഹ മാധ്യമങ്ങളായ ഇൻസ്റ്റഗ്രാം വാട്സപ്പ് ഇതുപോലെയുള്ള മാധ്യമങ്ങളിലൂടെ ഞാൻ ഷെയർ ചെയ്യുകയും ചെയ്യും കാരണം ഞാൻ കണ്ട കാര്യങ്ങളെ എന്നെപ്പോലെതന്നെ മറ്റുള്ളവർക്കു കാണാൻ കഴിയുമെന്നില്ല അപ്പം മറ്റുള്ളവരിലോട്ടു ഞാനെൻ്റെ ഫോട്ടോകളിലൂടെ ആ ഒരു സ്ഥലത്തിൻ്റെ ഭംഗികളെത്തിക്കാനായി പരമാവധി ശ്രമിക്കാറുണ്ട്